ആ ആ ആ സിമ്മ് ഫോർ ജിയ ത്രീ ജിയാ ഏതാണ് വേണ്ടത് ഫൈവ് ജി ജിയോപ്പ അവൈലബിൾ ഉള്ളു വി എ ഒന്നും അവൈലബിൾ ആയിട്ടില്ല ഇപ്പം ത്രീ ജീൻ്റെ സിമ്മാണെന്ന് ഉണ്ടെങ്കിൽ ഫോർ ജി ഒക്കെ അവൈലബിൾ മാറ്റി കൺവെർട്ട് ചെയ്യാൻ കഴിയും പോർട്ടിങ്ങില്ല നമ്മൾ ജിയോന് വി എക്ക് അൻപത് രൂപ ഉള്ളൂ പിന്നെ ഇപ്പം അൻപത് രൂപ ഉള്ളൂ ഇനി കുറച്ചു കഴിഞ്ഞാൽ ഫ്രീ പോർട്ടിങ് ഉണ്ടാവകും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്നര ജീ ബിൻ്റെ വി ഐക്കാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ രണ്ട് ജി ബി ലാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ അങ്ങനെ വെക്കുന്നത് ആ നു സിം എടുക്കാൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് നിങ്ങളെ ആധാർ കാർഡും പിന്നെ ഫോട്ടോസ് ആവശ്യമുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ ഷോപ്പിൽ വരേണ്ടി വരും പിന്നെ സിമ്മിന്നൊക്കെ ഏതാണ് വേണ്ടത് ജിയോ ഏതാണ് വേണ്ടത് ആ റീചാർജ് ഇപ്പം ജിയ ആണെന്ന് ഉണ്ടെങ്കിൽ മാസത്തിലൊരു മുന്നൂറ്റി അറുപത് സംതിങ് വരും വി എ ആണെന്ന് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വൺ ജി ബി പിന്നെ

പോസ്റ്റ് നമ്മൾ ഇപ്പോൾ അവൈലബിളല്ല

ആ ആ കോളിംഗ നെറ്റ് ഇപ്പോൾ അതന്നെ നേരത്തെ പറഞ്ഞാൽ പ്ലാൻ ഉള്ളത് അതായത് വൺ ജി ബി ആണെന്ന് ഉണ്ടെങ്കിൽ വി ഐക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പിന്നെ ഒന്നര ആണെന്ന് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പിന്നെ ജിയോക്കെ ആകുമ്പോൾ കുറച്ച് കൂടും കാരണം അത് സിം കട്ട് ആവില്ല ആറ് മാസത്തിന് കട്ട് ആവില്ല ഈ മൂന്ന് ദിവസമേ എടുക്കുള്ളു ആ ആ ആ അടുത്തുള്ള ഔട്ട്ലെറ്റ് നിങ്ങൾ ആധാർ കാർഡ് വേണ്ട വരും പിന്നെ പുതിയ സിമ്മ് എടുക്കാത്തത് കോണ്ട് തന്നെ ലൈവ ആയിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും ആധാർ കാർഡിൽ അത ഫോട്ടോ മേച്ച ആണോന്ന് നോക്കൻ വേണ്ടിയിട്ട് അപ്പം അത് രണ്ടും ആവശ്യം ഉണ്ടാവൂള്ളൂ പിന്നെ നിങ്ങൾക്ക് ജിയ അല്ലാതെ വേറെ ഏതേലും സിമ്മ് ആവശ്യമുണ്ടോ

ആ ആ ഓഫേഴ്സ ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഇനി ഒരു വർഷത്തേക്ക് നിങ്ങൾ പ്ലാൻ എടുക്കാണെങ്കിൽ ജെസ്റ്റ് ഒരു തൊള്ളായിരത്തി അറുപത് റുപ്പ്യയാ ആവുള്ളൂ ഒരു വർഷത്തേക്ക് വൺ ജീ ബി ആ ആ അതായത് വൺ ജി ബി അപ്പം നിങ്ങൾ പറ്റും പോലെ എന്നാൽ ഓഫീസിലേക്ക് വരീ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു